കാറിൻ്റെ ഷോറൂം ആണോ ആ അപ്പോൾ എനിക്കൊരു ഫോർ സീറ്റ് കാർ എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് കാറിനെക്കുറിച്ചൊന്നും വലിയ പിടിത്തമൊന്നുമില്ല അപ്പോൾ നിങ്ങളെ അടുത്ത് ഏതാണ് അത്യാവശ്യം നല്ല നമ്മുടെ ബഡ്ജെറ്റ് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെർട്ടീ ലാക്സ് ആണെങ്കിൽ മുപ്പത് ലക്ഷം അപ്പം ആ ഒരു റേറ്റിന് പറ്റിയ കാർ ഏതാണ് ഉള്ളത് ആ തെർട്ടീ ലാക്സ് ബിലോ ആയാലും കുഴപ്പമില്ല എബോവ് ആവാണ്ടിരുന്നാൽ നമ്മളെ അടുത്ത് ആ ഒരു ബഡ്ജെറ്റെ ഉള്ളു നമുക്ക് റെഡി കാഷ് ആണ് അപ്പം എത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ തന്ന ഡീറ്റൈൽസ് ഒന്ന് പറയുമോ ആണല്ലെ ആ ഹാ ഹാ ഹാ

ആണ് അല്ലെ ഓ അത്രയേ ആയുള്ളൂ അല്ലേ എന്നാൽ ബോലെറോ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഇത് നമ്മൾ യാത്ര ഒക്കെ ചെയ്യാൻ നമുക്ക് നല്ല സുഖമായിരിക്കണം അപ്പോൾ ആ ഒരു കണ്ടീഷനുള്ള ഒരു വണ്ടിയായിരിക്കണം

ഓ ഇരുപത്തെട്ട് ലക്ഷം അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ തെർട്ടീ ലാക്സിന് ഏറ്റവും നല്ല ഏതാണ് വെഹിക്കിൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതുമതി ആണല്ലെ ആ ഹാ ആ ഹാ ഹാ ഹാ എക്സ് യൂ വി ഹൺഡ്രഡ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് എൻ്റെ ഹസ്ബൻ്റിനോടും കൂടി ചോദിച്ചു നോക്കട്ടെ ഹസ്ബൻ്റ് ഗൾഫിലാണ് അപ്പോൾ ഹസ്ബൻ്റ് ഇട്ടുതന്നിട്ട് ഈ ഇട്ടുതന്ന പൈസ ആണ് അപ്പോൾ നമ്മളതിനോട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞു അപ്പം അതാണ് ഞാൻ ചോദിച്ചിട്ടൊന്ന് ഹസ്ബൻ്റിനോടും കൂടി ചോദിച്ചിട്ട് എക്സ് യു വി ആണോ അതോ ഫോർ സീറ്റ് തന്നെ വേണോയെന്ന് ചോദിക്കട്ടെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ ആ ഫോട്ടോ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ നല്ലതായിരുന്നു അപ്പോൾ എനിക്ക് അയച്ചു കൊടുക്കാമല്ലോ ഓക്കെ ഓക്കെ എന്നാൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് വിളിക്കാം ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം